ഹലോ ഇത് കമലം റെസ്റ്റോറൻറ്റല്ലേ ആ ഓക്കേ ഓക്കേ ഞാൻ ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ടാണെ ഇപ്പോൾ എനിക്കെൻ്റെ ഫാമിലി ആയിട്ട് അവിടെ റെസ്റ്റോറൻറ്റിലൊന്ന് വരണം അപ്പോൾ ഒരു ഈവെനിംഗ് ടൈമാണ് ഞങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെ അതെ അതെ ആ ടൈമിലവിടെ ഫ്രീ ആയിരിക്കുമോയെന്ന് അതായത് നമ്മൾ ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് ടേബിളൊക്കെ ഇപ്പം അവൈലബിൾ ആയിരിക്കുമോ ആ ടൈമിൽ അതേല്ലേ ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അവിടെ പാർക്കിങ് അവൈലബിളാണോ അതോ നമ്മൾ എക്സ്ട്രാ ഫീ വല്ലതും കൊടുക്കണോ പാർക്കിങ്ങിന് ചാർജ്സ് ഇല്ല ഓക്കേ ഓക്കേ ഓക്കേ ഇപ്പോൾ അവിടെ ഇപ്പോൾ വരുന്ന ടൈമിൽ അവൈലബിളായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ അതേല്ലേ ഇല്ല കുറച്ച് എയ്ജ്ഡ് ആയ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഐറ്റംസ് ചോദിക്കുന്നത് ആ ഓക്കേ ഓക്കേ അപ്പം ഞങ്ങളൊരു ഈവനിങ് സെവൻ തേർട്ടി ആ ടൈമിൽ വരാം അതെ അതെ അതെ അതെ ഓക്കേ ഓക്കേ താങ്ക് യൂ